ഹലോ ഹലോ ആ ഹ്യുണ്ടായീൻ്റെ ഷോറൂമായിരുന്നു ആരായിരുന്നു ആ എങ്ങനെ പുതിയ മോഡൽ ഇപ്പം നമുക്ക് ഹ്യുണ്ടായീൻ്റെ ക്രെറ്റ ഉണ്ട് മറ്റേ പല വെർണ ഉണ്ട് അങ്ങനെ കുറെ കാറുകൾ ഉണ്ട് നിങ്ങൾ ഏത് ബഡ്ജറ്റിൽ വാങ്ങാനാണ് ഉദ്ദേശിക്കുന്നത് ആ ബഡ്ജറ്റ് ഒരു ഫാമിലി കാർ അല്ലേ ആ ഫോർ സീറ്റർ ആ നമുക്ക് സെവൻ സീറ്ററൊക്കെ വരുന്നണ്ട് ആ അപ്പം അത് കുറച്ച് ബഡ്ജറ്റ് കൂടുതലാണ് അപ്പം നമുക്ക് ഹ്യുണ്ടായീൻ്റെ ഇപ്പോൾ പുതിയൊരു വണ്ടി ഇറങ്ങിട്ടുണ്ട് ആ ഹ്യുണ്ടായീൻ്റെ ഒരു പുതിയ വണ്ടി എറങ്ങീനിണ്ട് എക്സ്റ്റർന്ന് പറഞ്ഞിട്ട് അത് നല്ല അത്യാവശ്യം കുഴപ്പം ഇല്ലാത്ത രീതിയിൽ ഉള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കിപ്പോൾ ഫാമിലി യൂസിന് പറ്റിയ ഒരു കാറാണ് അത് ഇപ്പം ഇറങ്ങി ഇപ്പം ലോഞ്ച് ആയിട്ടെ ഉള്ളൂ നിങ്ങൾ ഇപ്പോഴേ ബുക്ക് ചെയ്യാണെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് വണ്ടി കിട്ടും അതിന്റെ വേരിയൻറ്റ്ന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിപ്പം നാ രണ്ട് എയർ ബാഗ് ഫ്രണ്ടിൽ രണ്ട് എയർ ബാഗ് വരുന്നേനും പിന്നെ ഫോർ ഡോറ് പവർ വിൻഡോ പിന്നെ പവർ സ്റ്റിയറിംഗ് എല്ലാ കാര്യങ്ങളും വരുന്നതാണ് അത് മിഡിൽ ഓപ്ഷനാണ് പിന്നെ അതിൻ്റെ ഫുൾ ഓപ്ഷൻന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നാല് നാല് ഡോറിൽ നമുക്ക് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നാല് പവർ വിൻഡോ വരുന്നുണ്ട് പിന്നെ നമുക്ക് അഡീഷണൽ മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട് പിന്നെ നമ്മുടെ ഇത് നമ്മളുടെ നമുക്കിപ്പോൾ സ്റ്റീരിയോ അതായത് നമുക്ക് എന്തേലും ഇപ്പം ടി വി ഒക്കെ കാണണമെങ്കിൽ നമുക്ക് അത് അതിനകത്ത് കണ്ടോണ്ട് നമുക്ക് നമുക്ക് എന്തായാലും ഡ്രൈവ് ചെയ്യുന്നവർക്കോ എന്തെങ്കിലും ഒക്കെ നമുക്കിപ്പം ഇത് ഞാൻ വിചാരിച്ചിനില്ലെ ആ അതൊക്കെ നമുക്ക് ഇപ്പം എവിടെ എങ്കിലും പോകുന്നുണ്ടെങ്കിൽ നാവിഗേഷൻ തന്നെ അതിനകത്ത് വരുന്ന ഒരു ടൈപ്പ് ഉണ്ട് അപ്പം ഏതാ എടുക്കുക ഏതാ ബുക്ക് ചെയ്യണ്ട ഏതാ ആ എയർ ബാഗ് നാലെണ്ണം ഉണ്ട്

ആ അത് തന്നെ അതിന് അതിന് അതിന് അത്യാവശ്യം നീട്ടം ഉണ്ട് ആക്സിഡൻറ്റ് ആയാലും നമുക്ക് നമുക്ക് നമ്മുടെ രീതിയിൽ ഉള്ള ടെസ്റ്റും കാര്യങ്ങൾ ഒക്കെ വണ്ടിയിൽ വണ്ടീത്തന്നെ ഇറങ്ങീട്ടുണ്ട് എയർ ബാഗ് ഉള്ളോണ്ട് നമുക്ക് വലിയ കാര്യമായിട്ട് ഒന്നും പറ്റില്ല നമ്മൾ ഫുൾ സീറ്റ് ബെൽറ്റ് ധരിച്ചിരിക്കണംന്ന് ഉള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ മറ്റ് ഏത് വണ്ടി ആണേലും സീറ്റ് ബെൽറ്റ് അതിന് ഇരുപത്തി അഞ്ച് ചില്ലറ വരും ആ ലോൺ ലോൺ സൗകര്യം ഒക്കെ നമ്മൾ ഇവിടന്നന്നെ ആക്കിത്തരൂട്ടോ ആ ആ ബാക്കി ലോൺ ഇട്ടാൽ മതി അപ്പം നിങ്ങൾക്ക് അതിനനുസരിച്ച് ഇൻ്ററസ്റ്റ് വരൂള്ളൂ നമ്മൾ ഇവിടിന്നന്നെ എല്ലം റെഡിയാക്കി തരാം നിങ്ങൾ കളർ ആ കളർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരിട്ട് വന്നിട്ട് ഒന്ന് ആ ആ ഓക്കെ ഓക്കെ അങ്ങനെ ആണെങ്കിൽ ഇന്നന്നെ പോര് കേട്ടോ